ഞാൻ ചെറുപ്പത്തിൽ തന്നെ മലയാളം എൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് പഠിച്ചാണ് ആദ്യത്തെ എൻ്റെ ഭാഷാപഠിത്തം ആരംഭിച്ചത് അവർ അമ്മ എന്ന് പറയുന്നത് കേട്ട് ഞാനത് ശ്രദ്ധിച്ചു മനസ്സിലാക്കി പല്ലുപോലും ഇല്ലാതിരുന്ന സമയത്ത് അ ആ മ്മ അമ്മ എന്നു പറഞ്ഞ് പഠിച്ച് ഈ ഭാഷ പറഞ്ഞ് അങ്ങനെ ഓരോ ദിവസവും പഠിച്ച് അങ്ങനെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഒന്ന് പഠിച്ച് പഠിച്ച് പഠിച്ച് ആണ് ഞാനീ ഭാഷയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിലോട്ട് കടക്കുകയും മലയാളം ഭാഷ നമ്മളത് കേരള ഇത് ഭാഷയായിട്ടും മാറിയപ്പോൾ തന്നെ എല്ലാവരും മലയാളം ഭാഷകളാണല്ലോ മലയാളമാണല്ലോ സംസാരിക്കുന്നത് ഇപ്പോഴും സർക്കാർ എല്ലാ പേപ്പറുകളും സർക്കാർ ഓർഡിനൻസുകളും ഓർഡറുകളും എല്ലാം മലയാളത്തിലാക്കാനായിട്ട് വളരെ കോടതിയിൽ നിന്ന് ഉള്ള പേപ്പറുപോലും മലയാളത്തിലാക്കണമെന്ന് നിർബന്ധമാക്കിയ ഓർഡറുകൾ ഉണ്ട് അപ്പം ഈ പഠിച്ചതു കൊണ്ടുള്ള ഗുണം ഇത് എല്ലാം നമുക്ക് ആ രീതിയിലുള്ള ഒരു ഗുണമാണ് ഏതു പരീക്ഷ പോലും മലയാളത്തിൽ എഴുതാനുള്ള ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ടായി കൊണ്ടിരിക്കുകയാണ് ചില കാര്യങ്ങൾ ചിലപ്പം പരീക്ഷകളൊക്കെ അങ്ങനെ നിർബന്ധമായി ഇനി ഇപ്പം വരാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞില്ലേ കോടതിയിൽ പോലും പേപ്പറുകൾ മലയാളത്തിൽ ആകണം എന്ന് നിർബന്ധമാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ മലയാള ഭാഷ പഠിച്ചതു കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യങ്ങളൊന്നും അല്ല ചെറിയ കാര്യം അല്ല ഇവിടുത്തെ ഏറ്റവും വികസന കാര്യങ്ങളിൽ നമ്മളിൽ കൂടി കടന്നു ചെല്ലാനുള്ള ഒരു പ്രവണത സർക്കാർ ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇച്ചരെ വിദ്യാഭ്യാസം കു ഞ്ഞവർക്കൊക്കെ ഒരു തപ്പലില്ലാതെ അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ നമ്മുടെ കാര്യങ്ങളെ അഭിമുകീകരിക്കാൻ നമുക്ക് സാധിക്കും അത് മുന്നോട്ടും ഇനി അങ്ങനെ മലയാള ഭാഷ വൻ വികസനമായി തീരണമെന്ന് താത്പര്യപ്പെടുന്നു